ആ ഞാൻ അർജ്ജുൻ്റെ അമ്മയാണ് ടീച്ചറ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ കണ്ടു ഇല്ല ഇല്ല

ആ ആ ഇപ്പോൾ കുറച്ച് മൊബൈലിൽ എല്ലാം കളി കൂടുതലാണ് ഇപ്പോൾ

ആ പറയുന്നുണ്ട് പക്ഷെ കുറച്ച് അനുസരിക്കുന്നില്ല ഇപ്പോൾ കളി കൂടുതലാണ് ടി വി മൊബൈൽ ഫോൺ

ആ വായിക്കാറൊക്കെ ഉണ്ട് എന്നാലും കളി കളി കുറച്ച് കൂടുതലാണ് ആ ആ ആ ആ ഉം ഓക്കെ ടീച്ചറേ ആ ഇനി ശ്രദ്ധിക്കാം ഉം ആ ആ ഓക്കെ ആ സ്കൂളിൽ ട്യൂഷൻ കൊടുക്കുന്നുണ്ടോ ആ അത് എങ്ങനെ ഫീ എങ്ങനെയാണ് ആ അപ്പോൾ ടഫ് സബ്ജക്റ്റിന് മാത്രമായിട്ട് എടുത്ത് കൊടുക്കുമോ അതോ എങ്ങനെയാണ് എല്ലാ സബ്ജക്റ്റിനും കൊടുക്കുന്നുണ്ടോ നമുക്ക് ആവശ്യം ഉള്ളത് മാത്രമേ കൊടുത്താൽ മതിയോ അങ്ങനെ ടഫ് ആയിട്ട് ഉള്ളതിന് മാത്രം മ് ആ ആ അങ്ങനെ കൊടുത്താൽ മതി ആ ആ എങ്ങനെ ക്ലാസ് ടീച്ചറ് തന്നെയാണ് സബ്ജക്റ്റ് എടുക്കുന്നത് ആ ആ ആ ഓ ആ ആ ആ ഇത് ഏത് ടൈം ഏത് എത്ര ടൈമിൽ ആയിരിക്കും ട്യൂഷൻ ഉണ്ടാവുക അപ്പോൾ ആ സൺഡെയോ

ഓക്കെ ഓക്കെ ആ ശരി ഓക്കെ ടീച്ചറെ